ആ നമ്മുടെ ഇന്നത്തെ നമ്മളുടെ ട്രിപ്പ് പ്ലാൻ ചെയ്തേക്കുന്ന നമ്മുടെ മധുരൈ വൈഗാ ഡാമക്കെ സന്ദർശിച്ച് അതിൽ മറ്റേ മീനാക്ഷീ ക്ഷേത്രമില്ലേ ആ അവിടൊക്കെ നമ്മൾ ഒന്ന് കറങ്ങി പിന്നെ അടുത്തൊരു നമ്മുടെ വൈഗാ ഡാമിനടുത്തൊരു ഫിഷിങ്ങ് സ്പോട്ടൊണ്ട് നമ്മുടെ ഫാമിലിയായിട്ട് തന്നെ നമുക്ക് അവിടെ തന്നെ ഫിഷിങ് സ്പോട്ടൊണ്ട് അപ്പം അവിടെ ഫിഷ് ചെയ്യാം ഇതിലുള്ള പാക്കേജിന്റെ പൈസാന്ന് പറഞ്ഞ് കഴിയുമ്പം നമ്മൾ മൊത്തം ഏകദേശം മൊത്തത്തിൽ ഒരു ഒരു ബസ്സാണ് നമ്മൾ നാൽപ്പത് പേരുടെ സീറ്റ് ബസ്സാണ് അതിന് ഏകദേശം ഒരു പതിനയ്യായിരം അടുത്ത് വരും ബസ് ട്രിപ്പ് മാത്രം പിന്നെ ബാക്കി ഫുഡ്ഡക്കെ എക്സ്റ്റേണലാണ് അവിടുത്തെ ഫെസിലിറ്റീസ്സ് നമ്മൾ വൺ ഡേ ട്രിപ്പാണ് പ്ലാൻ ചെയ്യുന്നത് നമ്മൾ രാവിലെ ഒരു മൂന്ന് മൂന്നേ കാലാകുമ്പോൾ ഇറങ്ങുന്നു ഉള്ള കളക്റ്റ് ചെയ്തിട്ട് നമ്മൾ അവിടെന്ന് ഒരു അഞ്ച് മണിയാകുമ്പോൾ ഇവിടെന്ന് ഇറങ്ങുന്നു ഒരു എട്ട് മണി എട്ടേ കാലക്കെ ആകുമ്പോഴ്ത്തേനും പെരിയാകൊളം എന്ന് പറഞ്ഞ തമിഴ്നാടിൽ ഒരു സ്ഥലമുണ്ട് അവിടെ ചെല്ലുന്നു നമ്മൾ കമ്പം

കമ്പം വെട്ട് വഴിയാണ് നമ്മൾ പിന്നെ നമ്മൾ പെരിയാകുളം എന്ന സ്ഥലത്തു ചെന്നിട്ട് അവിടെന്ന് നമ്മൾ കൊണ്ട് വരുന്ന ഫുഡ്ഡാ നമ്മൾ ഇവിടുന്ന് തന്നെ കൊണ്ട് ഉണ്ട് ഉണ്ടാക്കി കൊണ്ടുവരുവാണ് അപ്പം അവിടുന്ന് ഫുഡ്ഡ് വീട്ടിലെ ഫുഡ്ഡന്നെയാണ് അപ്പം അവിടുന്ന് കുക്ക് ചെയ്തിട്ട് പിന്നെ ചൂടാക്കിയിട്ട് അവിടെന്ന് കഴിക്കുന്നു പിന്നെ അവിടെന്ന് അടുത്ത സ്പോട്ടായിട്ടുള്ള നേരെ നമ്മുടെ മധുരൈ മീനാക്ഷി ക്ഷേത്രത്തിലേക്ക് വരുന്നു മധുര മീനാക്ഷി ക്ഷേത്രമൊന്ന് ചുറ്റിക്കണ്ട് വരുമ്പോഴ്ത്തേക്ക് ഒരു ഒരു മണിയാകും അപ്പം തന്നെ അവിടെന്ന് അടുത്ത് ഒരു പാലസൊണ്ട് മധുരൈ പാലസൊണ്ട് മധുരൈ പാലസ്സ് കണ്ട് വരുമ്പോഴത്തേന് ഒരു മണിയാകുമ്പോഴത്തേന് നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് ചെന്നിട്ട് ഫുഡ്ഡ് കഴിക്കാൻ പറ്റിയ സ്പോട്ട് കണ്ട് പിടിച്ച് അവിടെന്ന് നമ്മൾ കൊണ്ട് വരുന്ന ഫുഡ് ബാക്കി കുക്ക് ചെയ്തിട്ട് നമ്മൾ കഴിക്കുന്നു അവിടെന്ന് ഒരു രണ്ട് മണിയോടെ തിരിച്ച് പുറപ്പെട്ട് മൂന്ന് മണിയാകുമ്പോഴ്ത്തേന് നമ്മൾ നമ്മുടെ വൈഗാ ഡാം തമിഴ്നാടിന്റെ എസ് തേനി തേനീൽ ഒരു തേനീലൊരു ഫേമസ് റ്റൂറിസ്റ്റ് പ്ളേയ്സാണ് അവിടെ നമ്മൾ ചെല്ലുന്നു അവിടെന്ന് ഒരു അവിടെയൊരു രണ്ട് മണിക്കൂറോളം ചിലവിട്ട ശേഷം നമ്മൾ അവിടുന്ന് വൈകിട്ടത്തേ ചായ കുടിച്ച് പിന്നെ തിരിച്ച് പോരുന്നത് കമ്പം മേട്ടിലേക്കാണ് കമ്പം മേട്ടിൽ തിരിച്ച് കമ്പം മേട്ട് കമ്പം മേട്ടിൽ നമുക്ക് നമ്മുടെ മുന്തിരി പാടങ്ങൾ ഉണ്ട് അതായത് ആ അവിടെ ഫേയ്മസ് മുന്തിരി തോട്ടങ്ങളാണ് നമുക്ക് ജൂസും വൈനും പിന്നെ ജൂസ്സ് മേടിക്കാം വൈൻ മേടിക്കാം മുന്തിരികൾ നമുക്ക് എത്ര കിലോക്ക് വേണേൽ മേടിക്കാം നമുക്ക് അവിടെ കയറിക്കാണാം അവിടെ നമ്മൾ അവിടെ ഏകദേശം ഏകദേശം ഒരു നാല് മണിയോടെ ചെല്ലും ലൈവായിട്ട് കിട്ടും ലൈവായിട്ട് നമുക്ക് അള അതിന് വേണ്ടി കുഴിച്ച് മറ്റേ ചെടി നടുന്നതും അത് വളർന്ന് വലുതാകുന്നതെല്ലാം നമുക്ക് അവിടെ തന്നെ കാണാൻ വേണ്ടി സാധിക്കും

തിരിച്ച് വരുമ്പോഴ്ത്തേനും നമ്മൾ അവിടെ കയറുന്നു അവിടെ ഏകദേശം ഒരു രണ്ട് മൂന്ന് മണിക്കൂറുകളും അവിടെ ചിലവിട്ടശേഷമായിരിക്കും നമ്മളിങ്ങോട്ട് വരുന്നത് അവിടെ നമുക്ക് പിന്നെ ഉള്ള പ്രശ്നം എന്ന് പറയുമ്പോൾ ഒരു ഏകദേശം ഒരു അവിടെന്ന് നമ്മൾ ഒരു ആറ് മണി പുറപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒരു എട്ട് മണിയാകുമ്പോഴ്ത്തേന് ഇവിടെ തിരിച്ച് നമ്മുടെ എത്താറായിട്ടുള്ള സ്പോട്ടിലോട്ടെത്തും ഫുഡ്ഡ് കഴിക്കാനുള്ള സ്പോട്ടിലേക്ക് ആ ഫുഡ്ഡ അറേഞ്ച് ചെയ്തിരിക്കും അത് നമ്മൾ കൊണ്ട് വന്നതല്ല നമ്മൾ വേറെ ഫുഡ്ഡ് അവിടത്തെ വേറെ ചെയ്തിട്ടുണ്ട് അവിടെ തന്നെറേഞ്ച് ചെയ്തിട്ടുണ്ട് ആ ഫുഡ്ഡ് കഴിക്കുന്നു പിന്നെ നമ്മൾ പിരിയിന്നു അത്രയെ ഉള്ളു ഇത് മൊത്തത്തിലുള്ള ഓക്കെ ഓക്കെ